ഗ്രാമപ്രദേശത്തുള്ള കർഷകർ അനുഭവ ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് വെള്ളം ഒരു പ്രധാന പ്രശ്നമാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം കിട്ടാതെ കൃഷികളൊക്കെ ഉണങ്ങി നശിക്കാറുണ്ട് എന്നാൽ ജൂൺ ജൂലായ് മാസങ്ങളിൽ വെള്ളപ്പൊക്കവും ഭയങ്കര മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കം വന്നാൽ ഇത് നശിച്ച് പോകാറും ഉണ്ട് കാറ്റും ഇതിന് പ്രധാന ഒരു ഘടകമാണ് ഈ വാഴ കൃഷി ഒക്കെ ഉള്ളവർക്ക് കാറ്റ് വന്നാൽ ഈ കൃഷികളെല്ലാം ഒടിഞ്ഞ് പോകുകയും നശിച്ച് പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വാഴക്കൊലയൊക്കെ ആണെങ്കിലും മൂക്കുന്നതിന് മുൻപ് ഒടിഞ്ഞ് പോയാൽ അത് ഫലപ്രദമാകുമോ അല്ലല് ആകില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആ ഉണ്ട് കാരണം എന്നാൽ ഇതിനൊക്കെ ഒരു ധനസഹായം ഗവൺമെൻറിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി ഭവനിൽ നിന്നോ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരുന്നു മാറി വരുന്ന മാറി മാറി വരുന്ന കാലാവസ്ഥ ഈ കൃഷിയെ ഭയങ്കരമായിട്ടും ബാധിക്കുന്നു പിന്നെ ചെറുകിട കർഷകർക്കുള്ള പരിശീലനം ഈ കൃഷിഭവനിൽ നിന്നും മറ്റും കിട്ടുകയായിരുന്നെങ്കിൽ അത് നന്നായിരുന്നേനെ അവർക്ക് ഒന്നും കൂടി ഒരു ഉത്സാഹവും പരിശീലനം കിട്ടി കഴിഞ്ഞാൽ ഒരു ഉത്സാഹമാകും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് പോകുവാനായിട്ട്